ഞാൻ അടുത്തുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളൊക്കെ സന്ദർശിക്കാറെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഏരിയ ആണ് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കില് അധികം വലിയൊരു അതായത് കുറച്ച് ടൗണിലേക്കൊരു അഞ്ച് കിലോ മീറ്ററ് ആ ഒരു ഇതേ ഉള്ളു നമുക്ക് ചെറിയ ചെറിയ പലചരക്ക് കടകള് പിന്നെ ചായക്കടകള് അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടെങ്കിലും നമ്മള് കൂടില്ല അപ്പോൾ നമുക്കെന്തെങ്കിലും ഓണം വിഷു അല്ലേൽ കല്യാണം പിന്നെ റംസാൻ അതായത് പിന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം പിന്നെ ഈസ്റ്ററ് ക്രിസ്മസ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മളെന്തെങ്കിലും ബൾക്കായിട്ടൊക്കെ മേടിക്കണമെങ്കിലും നമ്മൾ ടൗണിൽ തന്നെയാണ് പോണത് അതായത് നമുക്ക് പട്ടണങ്ങളിലേക്ക് പോകും കാരണം എന്ന് വച്ചിട്ടുണ്ടെങ്കിൾ നമുക്ക് അതായത് നമുക്ക് പട്ടണങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വിലയൊക്കെ കുറഞ്ഞ് കിട്ടും പക്ഷെ നമ്മളിപ്പോൾ ഗ്രാമത്തിൽനിന്ന് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവര് അവിടുന്ന് കൊണ്ട് വരുന്ന ചാർജും കൂടെ നമ്മളുടെ അടുത്ത് നിന്ന് മേടിക്കും അപ്പോൾ നമ്മളൊരുമിച്ച് സാധനം മേടിക്കുമ്പോൾ നമ്മള് അവിടെ പട്ടണത്തിലേക്ക് പട്ടണങ്ങളിലേക്കാണ് പോവാറ് മുമ്പ് കുറച്ച് പച്ചക്കറിക്കൊക്കെ നമുക്ക് കുറച്ച് വിലകുറഞ്ഞൊക്കെ കിട്ടും പിന്നെ പച്ചക്കറിക്കാണെങ്കിലും പലചരക്ക് കട സാധനങ്ങൾക്കാണെങ്കിലും പിന്നെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് പട്ടണത്തിലേക്ക് തന്നെ പോവണം കാരണം നമ്മുടെയവിടെ ഡ്രെസ്സിൻ്റെ കട കാര്യങ്ങളൊന്നും ഇല്ല